ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സ്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മത്തിയാണ് കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മത്തി നമ്മുടെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും സുലഭമായിട്ട് കിട്ടുന്ന ഒരു മത്സ്യമാണ് പിന്നെ അതിന് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം മത്തി കഴിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ കേരളത്തിലെ ആൾക്കാർ പല രീതിയിൽ കഴിക്കുന്നവരുണ്ട് പിന്നെ കരിമീനുണ്ട് അയലയുണ്ട് പിന്നെ കൂന്തളുണ്ട് അങ്ങനെ പല രീതിയിലുള്ള മത്സ്യങ്ങൾ ഇപ്പോൾ കടലിലൊക്കെ ലഭ്യമായ മത്സ്യങ്ങളിഷ്ടം പോലെയുണ്ട് അപ്പോൾ അതിൽ നിന്നും കൂടുതലായിട്ടും കഴിക്കുന്നത് മത്തിയാണ് കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് പിന്നെ ഇപ്പോൾ അയലയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അയല കൂട്ടി കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് അനുഭവിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ മത്തി ആണെങ്കിൽ അങ്ങനെത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല അപ്പോൾ നമുക്ക് എന്താ പറയുക മത്തി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ടില്ല അതിന് പ്രോട്ടീനും കാര്യങ്ങളും വിറ്റാമിൻസും എല്ലാം അടങ്ങിട്ടുണ്ട് അപ്പോൾ കൂടുതലായിട്ടും മത്തി കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം